ഞാൻ അങ്ങനെ ദേശീയ തലത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ല കാരണംന്നു വെച്ച് കഴിഞ്ഞാൽ പങ്കെടുക്കണമെന്ന് വലിയ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പങ്കെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതുപിന്നെ സംസ്ഥാന ത തലത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിച്ചു സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത് ഫോറസ്റ്റിൽ പോയിട്ട് അവിടെയുള്ള ജീവികൾ പിന്നെ നേച്ചർ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അങ്ങനെയുള്ള ഫോട്ടോസാണ് ഞാൻ കൂടുതലയിട്ട് എടുക്കാറ് അപ്പം അത് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഇഷ്ട്ടപ്പെടാറുണ്ട് ഇവിടെ നമ്മളെ സംസ്ഥാന തലത്തിൽ തന്നെ നല്ല രീതിയിലുള്ള ഫോട്ടോഗ്രാഫി എടുത്തതിൻ്റെ പേരിലെനിക്ക് ആ പ്രോത്സാഹന സമ്മാനോം കാര്യങ്ങളൊക്കെ കിട്ടീട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ എന്താ ചെയ്യാ ഈ എടുത്ത ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് അവിടെ ഒരു എന്താ പറയാ ഹാള് രൂപീകരിച്ചിട്ട് അവിടെ നമ്മൾ തൂക്കാറാണ് പതിവ് അപ്പം ആൾക്കാർക്ക് ഇങ്ങനെ വന്ന് കാണാനുള്ള സൗകര്യോം എല്ലാം കാര്യങ്ങളും ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയാണ് എനിക്ക് നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റിയത് പിന്നെ ദേശീയ തലത്തിലൊക്കെ പോണംന്ന് ആഗ്രഹം ഉണ്ട് അപ്പോൾ സാധിക്കുവോന്നറിയില്ല നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്